ഹലോ ഞാൻ ബിൻസി ആയിരുന്നു അ നാളെ വിൻസെൻറ്റ് ഡി പോളിൻ്റെ ഒരു സെമിനാറുണ്ട് അതിലേക്ക് എനിക്ക് ചായയും കടിയും വേണമായിരുന്നു അ എന്തൊ എന്തൊക്കെയുണ്ട് വട്ടയപ്പമുണ്ടോ വട്ടയപ്പം എത്ര എണ്ണം ഉണ്ടാവും അ എനിക്കൊരു മുപ്പത് വട്ടയപ്പവും ഒരു മുപ്പത് വട്ടയപ്പം വേണം അ പഴംപൊരി ഒരു പിന്നെ ഇരുപത് എണ്ണം വേണം ശ്ശെ സാധനങ്ങൾക്ക് ചൂട് ഉണ്ടായിരിക്കുമോ ഉണ്ടാക്കി തരും ചായ ചായയും ഉണ്ടോ കാപ്പിയുണ്ടോ അ ഉണ്ട് അ എനിക്കൊരു വിതൗട്ട് പത്തു കാപ്പിയും വേണം ചായ ഒരു നാൽപ്പത് എണ്ണവും വേണം നാളെ ഒരു പതിനൊന്നു മണി ആകുമ്പോഴത്തേക്കും അ കൊണ്ട് വന്ന് കൊണ്ട് വന്ന് പള്ളിയിലേക്ക് കൊണ്ട് വന്ന് തരുമോ അതോ വന്നു മേടിക്കണോ കൊണ്ട് വന്ന് തരും സെൻറ്റ് ജോർജ്ജ് ഫൊറോന ചർച്ച് പാറത്തോട്

പതിനൊന്ന് മണിക്കാണ് സെമിനാറ് തുടങ്ങുന്നത് ഒരു മണിക്കൂർ സെമിനാറുണ്ട് ഉവ്വ് എത്ര രൂപയാണ് ഇരുന്നൂറ് മൊത്തം എത്ര രൂപയാവും ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് ഇല്ല

അ ആയിക്കോട്ടെ നമുക്ക് ഉടനെ ഒരു പരുപാടിയും കൂടി വരുന്നുണ്ട് എന്തോ അ അത് ഇപ്പം വേണ്ട ചിലപ്പോൾ സെമിനാറ് കഴിഞ്ഞ് രണ്ടുപേര് വൈകിട്ടത്തേക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചോറിന് വൈകുന്നേരത്തേക്ക് പറഞ്ഞേക്കാം അ ഉണ്ട് ഉണ്ട് നല്ല ഫുഡാണ് നല്ല അഭിപ്രായമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത്

ചോറിൻ്റെ കാര്യം ഉച്ചയ്ക്ക് പറഞ്ഞാൽ മതിയോ ഇച്ചിരി നേരത്തെ പറയണം അ അ അ അ

ആയിക്കോട്ടെ അ പറയാം മ്മ് അ ഗ്ലാസ്സ് ഗ്ലാസ്സ് പേപ്പറ് ടിഷ്യു പേപ്പറും വേണം ഗ്ലാസിൻ്റെ ഇതും വേണം അ ഞാനിനി വിളിക്കണോ വിളിക്കണോ അ മതി മതി

അ അ അ എന്നാൽ ശരി മ്മ്